വാര്ത്തകളെന്ന് പറയുമ്പം നമ്മളേറ്റവും കൂടുതൽ കാരണം നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് കിട്ടുന്നൊരു സാധാരണ സംഭവമാണ് വാര്ത്തയെന്ന് പറയുന്നത് കാരണമൊരു എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അല്ലെങ്കില് ഈ നമ്മുടെ സ്പോര്ട്സ് വിനോദം ബിസിനസ്സ് മറ്റേ ഇത് എന്തെങ്കിലും കൊല നടന്നാലോ എന്തെങ്കിലും ഇപ്പോൾത്തന്നെ നമ്മുടെ അര്ജുന്റെ കാര്യം തന്നെ അത് തന്നെ ഇപ്പം ലൈവ് അപ്ഡേഷനല്ലേ അത് ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽത്തന്നെ ടി വി ഒന്ന് ഓണാക്കിയാൽ മതി ലൈവ് ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം എന്തെങ്കിലും എന്തുവാ ആരെങ്കിലും വിഷ അടി ഉണ്ടാക്കുന്നതോ അല്ലെങ്കില് ആക്സിഡന്റ് പറ്റുന്നതോ കായികപരമായുള്ള കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും അപ്പപ്പം നമുക്കറിയാന് പറ്റും

അതെന്തായിരുന്നു ചില കാര്യങ്ങളിലും ന്യൂസിനെ വിഷയങ്ങൾ മാറ്റാം കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയാൽത്തന്നെ ലൈവ് കൊടുത്തതുകൊണ്ടാണ് അവര്ക്ക് ഭയങ്കര പണി ആയത് അങ്ങനെ ചില ചില ക്വാളിറ്റികൾ ഇവരുടെ ഭാഗത്തുമുണ്ട് ഇല്ലെന്നല്ല വാര്ത്താപരമായിട്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഓ നല്ല കാര്യങ്ങൾ ഇല്ലെന്നല്ല ഉണ്ട് നല്ലാറും ഇഷ്ടം പോലെയുണ്ട് കാരണം നമുക്ക് എല്ലായ്പ്പോഴും അപ്ഡേറ്റാകാന് പറ്റും ഇത് കാണുമ്പം തന്നെ അത്കൊണ്ട് ചാനലിനെക്കുറിച്ച് പറയുമ്പം ഇതൊക്കെയേ പറയാനുള്ളു വലുതായിട്ട് ഒന്നുമില്ല പിന്നെ രാഷ്ട്രീയം രാഷ്ട്രീയം നമ്മുടെ ഇലക്ഷന് സമയം പിന്നെ സ്പോഴ്സ് ക്രിക്കറ്റിന്റെ സംഭവങ്ങൾ അറിയാൻ പറ്റും എല്ലാം നമുക്കപ്പം തന്നെ കാണാനും പറ്റുന്നുണ്ട് പിന്നെ ഏറ്റവും നല്ല ഇപ്പം വിനോദയാത്രകളെ കുറിച്ചുള്ള അപ്ഡേഷൻ ഇപ്പം നല്ലപോലെ വരുന്നുണ്ട് പണ്ട് കാലത്തേക്കാളും രാവിലെ എന്തുവാ പറയുന്നത് നമ്മുടെ ഇത് സ്ഥലങ്ങൾ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഇവർ ഡോക്കുമെന്റ്റി ആയിട്ട് ഇറക്കുമായിരുന്നു വാര്ത്തകളിലൊക്കെ ആ അതായത് ഈ മൂന്നാറ് യാത്ര അല്ലെങ്കിൽ വിനോദം അപ്പം അതിനകത്തൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നടക്കുന്നുണ്ട് പിന്നെ പിന്നെ ബിസ്നസ്സ്പരമായിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ഇടപെടുന്നുണ്ട് പിന്നെ ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് തന്നെ കായികം വിനോദം ബിസ്നസ്സ് ഇതൊക്കെ കാണാനുള്ളതും എല്ലാം അതിനകത്ത് ന്യൂസ്പരമായിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നല്ലപോലെയറിയാന് പറ്റുന്നുണ്ട് ഇവരെ തന്നെ ഇടയിൽ പിള്ള വിദ്യാഭ്യാസത്തിന്റെ എന്താ പറയുക പത്താം ക്ലാസ് പരീക്ഷയുടെ തന്നെ പരീക്ഷ ഫലം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ വരുന്നതിനു മുമ്പേ തന്നെ ഇവര്ക്ക് വാര്ത്ത വെച്ച എല്ലാവർക്കും കിട്ടുമല്ലോ വാര്ത്തകള് നമ്മൾ വായിക്കുന്നത് ഈ പിന്നെ പത്രവാര്ത്ത പത്രവാര്ത്തയും ഇതും ഒക്കെ ഒന്ന് തന്നെയല്ലിയോ ന്യൂസ് കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണ് അതിനകത്ത് വരുന്നതും ഒന്ന് തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ന്യൂസായിട്ട് കാണുന്നത് കായികമാണ് കായികം ഭ്രമം പിന്നെ അല്ലാതെ നമ്മുടെ ഇത് ആരെയെങ്കിലും കാണാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം അര്ജുന്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടേൽ അതിപ്പം ലൈവ് കാണുന്നുണ്ട് ഞാനേറ്റവും കൂടുതൽ കാണുന്നത് കായികമാണ് ക്രിക്കറ്റാണ് കാണുന്നത് കാരണം ക്രിക്കറ്റിന്റെ ന്യൂസ് അല്ലാതൊന്നും നമ്മളങ്ങനെ കാണുന്നില്ല പിന്നെയുള്ളത് രാഷ്ട്രീയം ഇലക്ഷന് സമയമാകുമ്പോഴും ന്യൂസ് വെയ്ക്കാറുണ്ട് അതും കാണുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ കാണലുളളൂ